സ്കൂൾ ഒത്തുചേരലുകളിലോക്കെ പങ്കെടുത്തിട്ടുണ്ട് അതായത് ഗെറ്റ് ടുഗെദർ ഞാൻ പങ്കെടുത്തിട്ടുള്ളത് പ്ലസ് ടു ടൈമിൽ ആയിരുന്നു പ്ലസ് ടുവിന്റെ പ്ലസ് ടു കഴിഞ്ഞു ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് പങ്കെടുത്തത് ഞാൻ ആ ഒരു ഗെറ്റ് ടുഗെദറിലേ പങ്കെടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിച്ച് ഗെറ്റ് ടുഗെദർ ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് പോകാൻ ഒന്നും പറ്റിയില്ല ഞാൻ ആ സമയത് പ്രെഗ്നൻസി ടൈം ആയിരുന്നു അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതായത് ബാച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ബാച്ച് ആണ് അടിപൊളിയാണ് അതായത് ക്ലാസ്സിൽ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ ഒക്കെ വീണ്ടും ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞൊക്കെ കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു എന്താണ് പറയുക നല്ല മൊമെന്റ്സ് ആണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ ആയിരിക്കും അവർ അവരുമൊത്ത് ഭക്ഷണം ഒക്കെ കഴിച്ചത് പിന്നെ അവരുമൊത്ത് ഭക്ഷണം ഒക്കെ കഴിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു കൂടി ചേരൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു മെമ്മോറബിൾ മൊമെന്റ്സ് ആണ് അപ്പം അതൊക്കെ എനിക്ക് അടിപൊളിയായിട്ടുള്ള അനുഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ബെസ്റ്റ് ഫ്രണ്ട്സും പിന്നെ അതായത് നമ്മൾ കോണ്ടാക്ടിൽ ഇല്ലാത്ത ഫ്രണ്ട്സും അവരെ ഒക്കെ കോൺടാക്ട് അതായത് കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ നമ്പർ ഒക്കെ മേടിച്ച് മെസ്സേജ് അയയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്യുക നല്ല ഒരു അനുഭവമായിരുന്നു